സാഹിത്യത്തിലും കവിതയിലും കലാവിഷ്കാരങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് മലയാള ഭാഷ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് ഇപ്പോള് സാഹിത്യത്തില് കവിതയിലെന്നു പറഞ്ഞാല് നമുക്ക് ആശയം മനസ്സിലാക്കാൻ ആശയങ്ങള് കൂടുതൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും വായിക്കുമ്പോഴേക്കു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് കവിതയില് കൊടുത്തിട്ടുള്ളത് കവിതയില് നമ്മള്ക്ക് ഒരു വരിയില് ഒരുപാട് ആശയമുണ്ടാകും അതു മനസ്സിലാക്കണമെങ്കില് ഒന്നു മനസ്സിരുത്തി രണ്ടുമൂന്നു വട്ടം വായിച്ചാലേ അതിന് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നു നമുക്കു മനസ്സിലാവുകയുള്ളൂ അതേ സമയത്തു സാഹിത്യത്തിലാണെങ്കില് സാഹിത്യം ഒരു ഒരു വാക്കിനെ വർണ്ണിച്ചുകൊണ്ട് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ അതിനെ മറ്റൊരു രീതിയിലേക്കു മാറ്റിയിട്ടാണു സാഹിത്യത്തില് പറയുന്നത് സാഹിത്യം എന്താണ് കവിതയിലും സാഹിത്യങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനു വ്യത്യസ്തമായ രീതിയിലാണു കവിതകള് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മിത്തുകളൊക്കെ ചേര്ന്നതിനെയാണു കവിത എന്നു പറയുന്നത് എന്താണ് അങ്ങനെ ഓരോ കലാവിഷ്കാരങ്ങളും പല പല ഇപ്പോള് കഥകള് എഴുതുകയാണെന്നുണ്ടെങ്കില് മലയാളത്തില് നമ്മുടെ നാടൻ ഭാഷയിലാണു മലയാള എന്താ കഥകള് എഴുതുക പക്ഷെ കഥകള് പോലെയായിരിക്കില്ല എന്താണ് നോവലുകള് നോവലുകള്ലും അത്യാവശ്യ സാഹിത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതുക പക്ഷെ കവിതയിൽ സാഹിത്യങ്ങളാണെങ്കിലും പക്ഷേ അതിനു വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടുതന്നെ പല എന്താണ് എല്ലാ കലാവിഷ്കാരങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് മലയാള ഭാഷ ഒന്നേ ഉള്ളെങ്കിലും പലയിടത്തും പല രീതിയിലാണ് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ പല രീതിയില് എന്താണ് കലാവിഷ്കാരങ്ങളില് ഇത് ഉപയോഗിക്കും കവിതയില് എന്താണ് കവിതയില് നമുക്കു പെട്ടെന്നൊന്നും ആശയം മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല സാഹിത്യ ഭാഷയില് ഇപ്പോള് ഒരു കഥ ഒരു നമ്മുടെ നാടൻ ഭാഷയിലൊരു കഥയെഴുതുകയാണെന്നുണ്ടെങ്കില് അതില് സാഹിത്യങ്ങള് കൊണ്ടുവന്ന് നോവലുകള്ള് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സഹിത്യങ്ങള് കൊണ്ടുവന്നാല് ഒരുപാട് കുറച്ചുകൂടി കഥയെ മനോഹരമാക്കാൻ പറ്റും അതേപോലെ തന്നെ കവിതകളില് ഇപ്പോള് ഉദാഹരണത്തിനു കവിതകളില് എഴുതി കയ്യെഴുത്തെന്നു പറയുന്നതുകൊണ്ട് പേനയ്ക്കു പകരം അതില് തൂലിക അങ്ങനെയക്കെ ഒരു മറ്റു രീതിയിലേക്കു മാറ്റി വർണ്ണിച്ചുകൊണ്ടാണു കവിതയില് പറയുന്നത് കഥകള് എന്താണ് ഓരോ എഴുത്തുകാരന്മാരെ രീതിയില് ഇപ്പോള് ബഷീര് എന്താണ് ആണെങ്കില് വൈക്കം മുഹമ്മദ് ബഷീറാണെങ്കില് എന്താണ് ബഷീറിന്റെ രീതിയിലാണ് എന്താണ് ഓരോ നാട്ടിലെ രീതിയിലാണ് എന്താ കഥയെഴുതുന്നത് അതൊക്കെ ഓരോരുത്തരുടെ എന്താണ് രീതി അനുസരിച്ചിട്ടാണ്